ഹലോ ഞാൻ കെണാശ്ശേരിയിൽ നിന്നാണെ വിളിക്കുന്നെ കെമ്മാർ ബേക്കറിയല്ലേ അതേ ഞാൻ വിളിച്ചത് ഇന്നു ഞങ്ങളുടെ ഇവിടൊരു കൂട്ടായ്മയുണ്ടെ അഞ്ചു മണിക്കേ അപ്പോളെനിക്ക് ചൂടുള്ള ഇരുപത്തഞ്ച് കാപ്പിയും ഇരുപത്തഞ്ച് സമൂസയും വേണം ചൂടൊട്ടും കുറയരുതെ ചൂടോടെ തന്നെ വേണം ഞാൻ മിക്കവാറും അവിയ്യെ നിന്നു സാധനങ്ങൾ വാങ്ങിക്കുന്നതാണെ നിങ്ങളുടെ ആ സ ഉത്പ്പന്നം നല്ലതായതു കൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ടാക്റ്റ് ചെയ്താണെ എനിക്ക് പിന്നെ ഒരു അഞ്ചു മണിയാകുമ്പോഴത്തേക്കിന് സാധനം വീട്ടിലെത്തിക്കണം ചൂടൊട്ടും പോകരുത് ചൂടു പോകാതെ ഫ്ലാസ്ക്കിലോ പിന്നെ ചൂടു പോകാത്ത കെറ്റിലിലോ ഒക്കെയാക്കി സംഗതി എത്തിക്കണം ചൂടൊട്ടും കുറയാൻ പാടില്ല അതുപോലെ സമൂസയാണെങ്കിലും തെ ചൂടു പോകാതെ പാക്ക് ചെയ്ത് എത്തിച്ചു തരണം തരണം പിന്നെ നിങ്ങളുടെ കടയേ കുറിച്ചു ഞാൻ ഒത്തിരി അറിഞ്ഞു കേട്ടിട്ടുള്ളതു കൊണ്ട് ഞാൻ കുറേ നാളായിട്ട് നിങ്ങളുടെ അവിടെ നിന്നാണ് സാധനങ്ങളെല്ലാം വാങ് വാങ്ങിക്കുന്നത് അങ്ങനെ ഞാൻ ഒത്തിരി പേർക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുകയും നിങ്ങളുടെ ഫുഡ് നല്ലതാണ് നിങ്ങൾ സമയത്ത് ചൂടുള്ള ഭക്ഷണങ്ങൾ എത്തിച്ചേരുന്ന സംവിധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനൊത്തിരി പേരെ നിങ്ങളുടെ കടയിലേക്ക് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഫുഡ് എത്രയും നല്ലതായി പിന്നേ എന്നാ ഈ വരുന്നവർക്ക് തരാൻ നിങ്ങൾ തയ്യാറാകണം അപ്പോൾ നിങ്ങൾക്കു പിന്നെയും ബിസിനസ്സ് മുന്നോട്ടു കൂടുതൽ കൊണ്ടു പോകാനായിട്ടു സാധിക്കും അതായത് നാ ഞാനിപ്പം ചൂടുള്ള ഭക്ഷണം പറഞ്ഞെങ്കിൽ അവർക്കു ചൂടുള്ളത് കൊടുത്തു കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇതേത് എവിടെ നിന്നാന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എമ്മാർ ബേക്കറിയിൽ നിനാന്നെ ത് എനിക്ക് പരിചയമുള്ള ആളാണെ നമ്മളെന്നാൽ സാധങ്ങൾ ഓഡർ ചെയ്താലവർ കറക്റ്റ് നമുക്ക് എന്നാൽ സമയത്തെത്തിച്ചു തരും അതു പോലെ ചൂടു വേണം പറഞ്ഞാൽ ചൂടുള്ള വ പിന്നെ സാധനങ്ങൾ നമുക്ക് ചൂട് ഒട്ടും കുറയാതെ അവർ നമ്മുടെ കൈകളിലെത്തിച്ചു തരും അതു കൊണ്ട് അവർ ചോദിക്കുമ്പോൾ നമുക്കു പറയാം ഇന്നയൊരു നല്ലയൊരു എന്നാ ദ് ബേക്കറിയാണെ നമുക്ക് എന്നാ സാധനങ്ങൾ പറഞ്ഞാലവർ സമയത്ത് കറക്റ്റ് നമുക്കെത്തിച്ചു തരുന്നുണ്ട് നമുക്കവിടോഡർ കൊടുക്കാമെന്നും പറഞ്ഞ് ഒത്തിരി ആൾക്കാർ നിങ്ങളിലെ ബിസിനസ്സിനെ വിപുലീകരിക്കാനായിട്ട് നിങ്ങളുടെ കടകളിൽ വന്നു സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടു പോകും അങ്ങനെ നിങ്ങൾക്ക് നല്ല ഉയർച്ച കിട്ടും സാധനം എത്രയും ചൂടായിട്ട് പ പറയുന്നത് ചൂടായിട്ട് കൊടുക്കണം തണുത്ത സാധനം പറയുമ്പോൾ തണുത്തതായിട്ടു കൊടുക്കണം അതായത് അതാണ് നിങ്ങളുടെ കച്ചവടത്തിൻ്റെ മികവു തെളിയിക്കണത് അതുകൊണ്ട് എനിക്ക് ഇത്ര എത്രാം തിയതി പന്ത്രണ്ടാം തിയതി അഞ്ച് മണിക്ക് ഇരുപത്തഞ്ച് കാപ്പിയും ഇരുപത്തഞ്ച് സമൂസയും എത്തിച്ചു തരണം ഓക്കെ